അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ആവശ്യമാണ് കാരണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള വരവ് കൂടുന്നതിനനുസരിച്ച് റോഡുകളുടെയൊക്കെ ശോചനീയ അവസ്ഥ കൂടി കൂടി വരുകയാണ് വണ്ടികൾ ചീറി പായുന്നത് കാരണം റോഡുകൾ കുണ്ടും കുഴിയും നിറഞ്ഞ് പൊട്ടിയ അവസ്ഥയാണ് താമസവും ആയിക്കോട്ടെ ഭക്ഷണങ്ങളായിക്കോട്ടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ പോലും ഇനിയും അത് കൂടുതലായി കഴിഞ്ഞാൽ കൂടുതൽ ആകർഷിക്കാൻ പറ്റും വിദേശികളെയും മറ്റുള്ളവരെയും ഇനിയും ആകർഷിക്കാൻ പറ്റും ഇപ്പോൾ ഗതാഗത നിയന്ത്രണങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ ഒരുപാട് പേരുണ്ടാവുമ്പോൾ അവിടെ തിക്കിയും തിരഞ്ഞും കാരണം പല നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കുറച്ച് കൂടെ ആളുകളെ ശ്രദ്ധ ക്രേന്ദ്രീ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇനിയും ആവശ്യമായിട്ട് വരും